എനിക്ക് കൊറോണ ഉണ്ടോയെന്ന് സംശയമുണ്ട് ഭയങ്കര ചുമയൊക്കെയാണ് ചുമയും പനിയുമൊക്കെയാണ് ആ ചുമയും പനിയും മേല് വേദനയൊക്കെയുണ്ട് ശ്വാസം മുട്ടുന്നപോലയൊക്കെ തോന്നുന്നുണ്ട്

ഇല്ല ക്വാറൻ്റയിൻ ആയിരുന്നു

ഇല്ല ഇവിടെ അങ്ങനെയാരേയും കേട്ടിട്ടില്ല ആ ഞാൻ ആ ഇല്ല ഞാൻ ടു വീക്കായി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ക്വാറൻ്റയിൻ ആയിരുന്നു

വേറെ ബുദ്ധിമുട്ടില്ല എന്തോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്

ആ ഓക്കെ ആ വാക്സിൻ എടുത്തിരുന്നു അവിടെ നിന്ന് ഒരു ഡോസെ എടുത്തുട്ടുള്ളു അടുത്ത ഡേറ്റ് ആവുന്നതേ ഉള്ളു

ആ ആ

ആ കുഴപ്പമൊന്നുമില്ല ഏയ് ഇല്ല ഹോം ക്വാറൻ്റയിൻ ആണ് ഇല്ല പ്രശ്നമില്ല

ആഓക്കെ ആ അയക്കാം എന്തുണ്ടെങ്കിലും സാറിനെ കോൺടാക്ട് ചെയ്താൽ പോരെ സ്ഥലം മാനന്തവാടി